പത്ത് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് പതിനൊന്ന് പയിന പതിനൊന്ന് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് പന്ന് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിമൂന്ന് നാല് രണ്ടായിരത്തി പത്ത് പതിനാല് ഏഴ് രണ്ടായിരത്തി മൂന്ന്